ഹലോ ഹലോ ആ ആരാണ് സംസാരിക്കുന്നത് അതെല്ലോ അതെ മ് മ് മ് പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ ആരിൽ നിന്നും ഒരു കിട്ടിയിട്ടില്ലല്ലൊ ഇത്ര മോശമായിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം നല്ല നിലവാരമുള്ള സാധനങ്ങളാണ് അങ്ങനൊരു കമ്പ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല എന്താ സെ ഓക്കെ പൈസ തിരിച്ച് തരാൻ പറ്റത്തില്ല നമുക്ക് വേണമെങ്കിൽ സാധനത്തിന് പകരം സാധനങ്ങൾ തന്നെ തിരിച്ച് തരാം പൈസ തരാൻ പറ്റത്തില്ല അതിന്റെ ബില്ല് തന്നിട്ടില്ലേ ബില്ലിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടല്ലോ ഒരു പ്രാവശ്യം നമ്മള് വിൽക്കുന്ന സാധനങ്ങൾ തിരിച്ച് എടുക്കുകയില്ല എന്ന് നമ്മള് എഴുതിയിട്ടുണ്ട് നമ്മള് സാധനങ്ങൾ തിരിച്ചെടു ഒന്നെങ്കിൽ പകരം തരാം അല്ലാതെ ക്യാഷായിട്ട് പൈസ തരാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ കുറച്ച് പിന്നെ കുറച്ച് പേനയും അങ്ങനത്തെ സാധനങ്ങളായിരുന്നു ഈ ബുക്കിനകത്ത് പേപ്പറുകള് കുറെ കീറി ഇരിക്കുകയും ആ അതേപോലെ തന്നെ അത് എഴുതാനുള്ളൊരു നിലവാരം ഇല്ലായിരുന്നു അതിനകത്ത് അത് എന്താ പറയുക പേനയാണെങ്കിൽ കുറെ ഒക്കെ തെളിയുന്നില്ല മ് മ്

അത് സ്വയം തന്നെ അത് സാധനങ്ങള് നമ്മള് തിരിച്ചൊന്ന് കടയിൽ കൊണ്ട് വാ നമ്മള് നോക്കിയിട്ട് നോക്കിയിട്ട് നമ്മൾ അതിന് പകരവായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് തരാൻ നോക്കാം ഏതായാലും അത് കടയിലോട്ടൊന്ന് കൊണ്ട് വാ പൈ നമ്മള് ക്യാ പൈ നമ്മള് പൈസ തിരിച്ച് കൊടുക്കാറില്ല പൈസ തിരിച്ച് കൊടുത്താല് നമുക്ക് അത് നമ്മളത് സാധനം തിരി നമുക്ക് അത് തന്ന കമ്പനിക്ക് തന്നെ നമുക്ക് തിരിച്ച് കൊടുക്കാമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങള് സാധങ്ങളേതായാലും ഷോപ്പിലോട്ട് കൊണ്ട് വാ ഞങ്ങള് സാധനത്തിന് പകരം സാധങ്ങളായിട്ട് തിരിച്ച് തരാം മാറ്റിത്തരും നിങ്ങളുടെ സൗകര്യവനുസരിച്ചേത് ദിവസവും നിങ്ങൾക്ക് വരാം ബിൽ കൊണ്ട് വരണമെന്നെ ഉള്ളു എപ്പം വന്നാലും ഏത് ദിവസം വന്നാലും മതി

ശരി എന്നാൽ ഓക്കെ